സാങ്കേതിക വിദ്യയിൽ പുരോഗതി നല്ലതുതന്നെ പക്ഷെ അതിൻ്റെ ആവശ്യങ്ങൾന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ ഞങ്ങളും ഉപയോഗിക്കുന്നുണ്ട് നെറ്റ് ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടൊരുപാട് കാര്യങ്ങള് ഞങ്ങളിപ്പം ദൂരെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് കാണാം അതൊക്കെന്ന് പറഞ്ഞാൽ ഇൻറ്റർനെറ്റ് ഉപയോഗിക്കാതെ പറ്റത്തില്ലല്ലോ ഞങ്ങള് വീഡിയോ കോള് വഴി മക്കളെ ഒന്ന് സംസാരിക്കാനും കാണാനും എല്ലാം ഒരുപാട് വന്നിട്ടുണ്ട് അതുപോലെ ഹോട്ടെലിലിൽ ബുക്ക് ചെയ്യുക ടിക്കെറ്റുകളും അതുപോലെ പേയ്മെൻറ്റ് അടക്കുക ഇതൊക്കെ ഞങ്ങള് ഒരുപാട് കാര്യങ്ങള് ഇതിൽനിന്ന് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സാങ്കേതിക വിദ്യയിലെ പുരോഗതി നല്ലതുതന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾക്കിപ്പം പഴയ ഇതിലൊട്ട് പോകാൻ പറ്റത്തില്ല നമ്മള്ക്ക് മാറ്റങ്ങള് വരുമ്പോൾ ആ മാറ്റത്തിൽ കൂടെ മുന്നോട്ട് പോകാനാണ് ഇഷ്ടപ്പെടുന്നെ എപ്പഴും പുരോഗതി നല്ലതുതന്നെയാണ് പക്ഷെ അന്നും ഇന്നും ഒന്ന് തന്നെ പറയുന്നത് നല്ലതിന് മാത്രം നമ്മൾ ഇൻറ്റർനെറ്റ് ഉപയോഗിക്കുക അല്ലാതെ നല്ല ആവശ്യങ്ങള് മാത്രം എടുക്കുക അല്ലാത്തത് തള്ളി കളയുക അതാണ് ഞങ്ങൾക്കേറെ ഇഷ്ടം അതുകൊണ്ട് ഞങ്ങള് സാങ്കേതിക വിദ്യയുടെ പുരോഗതി ഇഷ്ടപ്പെടുന്നു